എടാ പിന്നെ ഞാനീ വേനൽ കാലാവധിയില് ഗൾഫില് ഒരു വളണ്ടിയർ സന്നദ്ധ സേവനത്തിനു പോകുന്നുണ്ട് അപ്പോള് അതിനെനിക്ക് പാസ്പോർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട് ഞാന് പാസ്പോർട്ട് അപേക്ഷിക്കാൻ എന്തൊക്കെയാണ് എന്തൊക്കെ ഡോക്യമെന്റ്സാണു വേണ്ടത് എൻ്റെ എസ് എൽ സർഫിക്കറ്റ് എൻ്റെ കയ്യിലില്ല പിന്നെ അതുപോലെ എൻ്റെ ഫോൺ നമ്പർ ഏതൊക്കെയാണ് ഫോൺ നമ്പര് ഒന്പത് ആറ് നാല് അഞ്ച് ആറ് അഞ്ച് പൂജ്യം മൂന്ന് എട്ട് ആറ് ഇതാണ് അതുപോലെ പിന്നെ എനിക്ക് എൻ്റെ അടുത്തുള്ള ഐ ഡി കാർഡെന്നു പറഞ്ഞാൽ എനിക്ക് ലൈസൻസ് അതുപോലെ വോട്ടർ ഐ ഡി എൻ്റെ ആധാർ ഐ ഡി ഇതിൽ ഏതാണ് ഞാൻ എടുക്കേണ്ടത് അതുപോലെ പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നു പറഞ്ഞു തരുമോ പിന്നെ അതുപോലെ ഞാൻ അവിടെ പോയിട്ട് സന്നദ്ധ സേവനമെന്നു പറഞ്ഞാല് എല്ലാവരെയും സഹായിക്കുക അതുപോലത്തെ സംഭവമാണ് അപ്പോള് അതിന് ഫാസ്റ്റ് ഫുഡ് എടുക്കണം അതിൻ്റെ അവസാനതീയതി ലാസ്റ്റ് ഡേറ്റ് അങ്ങനെ എന്തേലും കാര്യങ്ങളുണ്ടെങ്കില് അതൊന്നു വിശദീകരിക്കണം അതുപോലെ ഇനി പാസ്പോർട്ടിന് എത്ര രൂപയാണ് ചെലവു വരുന്നത് രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെന്തോ ആണ് ഞാൻ കേട്ടത് അപ്പോല് അതെത്രയാണു ചെലവു വരികയെന്നും ഒന്നു പറഞ്ഞുതരണം കെട്ടോ